ഞങ്ങളുടെ നാട്ടില് പണ്ടുതൊട്ടേ കുട്ടികൾ കളിച്ചിരുന്ന ഒരുപാട് പരമ്പരാഗത കളികളുണ്ട് അതിലിപ്പോള് എല്ലാവര്ക്കും അറിയാവുന്ന തൊട്ടാ പ്രാന്തി കള്ളനും പോലീസും തുടങ്ങിയ കളികളും ഉണ്ട് ഇതില് തൊട്ടാ പ്രാന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ ആദ്യം പ്രാന്തിയാവും എന്നിട്ട് ബാക്കി എല്ലാവരെയും ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കും അപ്പോള് ആരെങ്കിലും ഒരാളെ തൊട്ടു കഴിഞ്ഞാല് ആള് അടുത്ത പ്രാന്തി ആയിട്ട് ബാക്കിയുള്ളവരെ പിടിക്കാൻ നോക്കും ഞങ്ങളിത് കളിച്ച് കളിച്ച് ഞങ്ങൾ ഇതിൻ്റെ പുതിയൊരു രീതിയിലുള്ള ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു കളി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് തൊട്ടാ ഭ്രാന്തി ടൂ എന്നാണ് ഞങ്ങളിട്ടത് അതിലെങ്ങനെയാണെന്ന് വച്ചാല് ഒരാളെ തൊട്ടു കഴിയുമ്പോള് ആള് പ്രാന്തിയാവുന്നതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആളും പിടിക്കാൻ ഈ പ്രാന്തി ടീമിലേക്ക് വരും അപ്പോള് അവസാനം ഒരാള് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുകയുള്ളൂ കളിയുടെ അവസാനം ആവുമ്പോഴേക്കും ബാക്കി എല്ലാവരും ഈ ഒരാളെ പിടിക്കാൻ നോക്കുവായിരിക്കും അതാണ് ഞങ്ങളിറക്കിയ പുതിയൊരു വേർഷൻ ഇതിൻ്റെ പിന്നെ കള്ളനും പോലീസും എന്ന് പറയുമ്പോള് ചില നാടുകളിൽ കള്ളനും പോലീസും എന്ന് ഈ തൊട്ടാ പ്രാന്തിനെ തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ ഞങ്ങളിവിടെ കള്ളനും പോലീസും എന്ന് പറഞ്ഞ് ഞങ്ങള് കളിക്കാറുള്ളത് ഒരു ഇരുന്നു കളിക്കുന്നൊരു കളിയാണ് അപ്പോള് അതിലെങ്ങനെയെന്ന് വച്ചാല് ഒരു പേപ്പർ എടുത്ത് പല കഷണങ്ങളാക്കും ഓരോന്നിലും കള്ളൻ പോലീസ് രാജാവ് രാജ്ഞി മന്ത്രി അങ്ങനെയൊക്കെ എഴുതും അപ്പോള് ഓരോ ഇതിനും അതിൻറ്റേതായ പോയന്റ്സ് ഉണ്ടാവും ഇപ്പോള് രാജാവിനായിരിക്കും ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് അങ്ങനെ അപ്പോള് കളി എന്താണെന്ന് വെച്ചാല് നറുക്കിട്ട് ഓരോരുത്തരും ഓരോ പേപ്പർ കഷണങ്ങളെടുക്കും അത് കഴിഞ്ഞിട്ട് പോലീസ് എന്നെഴുതിയ പേപ്പർ കിട്ടിയ ആള് കള്ളൻ കിട്ടിയ ആളെ ഇതിൻ്റെടയില്ന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം അതാണ് കളി പിന്നെ ഇതല്ലാണ്ട് ഞങ്ങളെ ഇവിടെ പരമ്പരാഗതമായി ഉള്ള പല വേറെയും കളികളുണ്ട് അതിലൊന്നാണ് പുള്ളീം പുള്ളീം ടീം പിടിച്ച് ആ കളി കളിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് കുറെ പേരുണ്ടെങ്കിൽ അതിനെ പല ടീമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതുകഴിഞ്ഞിട്ട് പല ടീമുകളായി തരംതിരിച്ചതിനു ശേഷം ഓരോ ടീമിനും അത് ഒരു എന്തെങ്കിലും ഒരു ചിഹ്നം കാണും അപ്പോള് ഈ ഓരോ ടീമും കളി തുടങ്ങി കഴിയുമ്പോള് ഒരു സമയപരിധിയുണ്ടാവും അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ കളി കളിക്കേണ്ടത് അപ്പോള് ആ ഒരു സമയപരിധിക്കുള്ളില് മറ്റു ടീമുകൾ കാണാതെ മണ്ണില് ഒരു കമ്പ് കൊണ്ടോ വല്ലോം ഈ അവരുടെ ചിഹ്നം വരച്ചിടാൻ നോക്കും അപ്പോള് അതിനെ പുള്ളി എന്നാണ് വിളിക്കുക അപ്പോള് മറ്റു ടീമുകൾ കാണാതെ ഏറ്റവും കൂടുതല് പുള്ളികൾ ഇടാൻ നോക്കണം അപ്പോള് വേറൊരു ടീം നമ്മൾ ഇടുന്ന പുള്ളി കണ്ടുകഴിഞ്ഞാല് അവര് വന്നത് മായ്ച്ചുകളയാൻ നോക്കും അപ്പോള് കളി എന്താണെന്നു വച്ചാൽ ഈ സമയ പരിധി കഴിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പുള്ളികൾ മണ്ണില് ഉള്ള ടീം ഏതാണോ ആ ടീമാണ് വിജയിക്കുക അങ്ങനെയാണ് പുള്ളീം പുള്ളീം ടീം പിടിച്ചൊക്കെ കളിക്കുന്നത് പിന്നെ സ്ഥിരമായിട്ട് കളിക്കുന്ന വേറൊരു കളിയാണ് മൂക്ക് ഞൊണ്ടി അതും ഇതുപോലെ ഇരുന്നു കളിക്കുന്ന ഒരു കളിയാണ് അപ്പോള് അതിലെന്താണു ചെയ്യാന്നുവച്ചാല് ഇതുപോലെ രണ്ട് ടീമായിട്ട് തരംതിരിക്കും അതുകഴിഞ്ഞിട്ട് ഇപ്പോള് രണ്ട് ടീമിൽ ഒരു ക്യാപ്റ്റനുണ്ടാകും അപ്പോള് രണ്ട് ടീമും ആദ്യം മാറി മാറി നിന്ന് ചർച്ച ചെയ്യും രണ്ട് ടീമും ഒരു എന്തെങ്കിലും ഒരു വിഷയം തെരഞ്ഞെടുക്കും അപ്പോള് ഒരു ടീം പഴങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമാവാം മറ്റൊരു ടീം കാറുകളാവാം അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ടീമും തെരഞ്ഞെടുത്ത വിഷയം അനുസരിച്ച് അതിലെ ഓരോ അംഗങ്ങൾക്കും ഒരു പേരിടും ഇപ്പോള് പഴങ്ങള് തെരഞ്ഞെടുത്ത ടീമിലെ അംഗങ്ങൾക്ക് ഒരാള് ആപ്പിള് ഒരാള് വാഴപ്പഴം ഒരാള് മുന്തിരി അങ്ങനെയൊക്കെയാവാം അത് കഴിഞ്ഞിട്ട് അതുപോലെ മറ്റേ ടീമിലാണെങ്കില് ടൊയോട്ട മാരുതി അങ്ങനെ പല ബെൻസ് അങ്ങനെയൊക്കെ പേരിടാം ഓരോ അംഗങ്ങൾക്കും അത് കഴിഞ്ഞതിനുശേഷം ഇവരെല്ലാവരും ഒന്നിച്ചു വന്നിരുന്നു കളി തുടങ്ങും കളി തുടങ്ങുമ്പോള് ഒരു ടീമിലെ ക്യാപ്റ്റൻ എഴുന്നേറ്റ് മറ്റേ ടീമിൻ്റെ അടുത്ത് പോയി ഒരാളുടെ കണ്ണുപൊത്തിപ്പിടിക്കും കണ്ണ് പൊത്തിപ്പിടിച്ചതിനുശേഷം സ്വന്തം ടീമില്നിന്ന് ഒരാളെ ക്യാപ്റ്റൻ വിളിക്കും ഇപ്പോള് പഴവർഗങ്ങൾ തെരഞ്ഞെടുത്ത ടീമിൻ്റെ ക്യാപ്റ്റൻ മറ്റ് കാറുകളുടെ ടീമില് പോയി ഒരാളുടെ കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് ഒരാളെ വിളിക്കും അതായത് ആപ്പിൾ വന്ന് മൂക്ക് ഞൊണ്ടു അങ്ങനെ വല്ലതും പറയും അപ്പോള് ആപ്പിൾ എന്ന പേര് കിട്ടിയ ആള് എഴുന്നേറ്റുവരും അത്കഴിഞ്ഞിട്ട് ഈ കണ്ണുപൊത്തി പിടിക്കപ്പെട്ട ആളുടെ മൂക്ക് ഞൊണ്ടിയിട്ട് തിരിച്ചു പോയിരിക്കും അതിനുശേഷം ക്യാപ്റ്റൻ മുഖത്തുനിന്നു കയ്യെടുത്ത് മാറ്റും അതുകഴിഞ്ഞ് ഈ കണ്ണുപൊത്തി പിടിക്കപ്പെട്ട ആള് കറക്റ്റായിട്ട് ആരാണ് വന്ന് മൂക്കുനോണ്ടിയ ആപ്പിൾ മറ്റേ ടീമില്നിന്ന് ആരാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചുകഴിഞ്ഞാല് ഒരു പോയിൻറ്റ് അങ്ങനെ നമ്മുടെ മൂക്ക് വന്ന് ഞൊണ്ടി പോയ ആൾ ആരാണെന്നു കണ്ടുപിടിക്കുക അതാണ് കളിയുടെ ഒരു പോക്ക് അപ്പോള് ഈ കളി കഴിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ്ള്ള ടീമേതാണോ ആ ടീം വിജയിക്കും അപ്പോള് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ പണ്ടു തൊട്ടേ കളിച്ചുവരുന്ന ചില പരമ്പരാഗത കളികൾ